പല ആശ്പത്രികളും ഇന്ന് നമ്മൾ രീ ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പാലക്കാട് തന്നെ ഒരുപാട് ആശുപത്രികൾ നിലവിൽ വന്നിട്ടുണ്ട് പുതിയ പുതിയ പുതിയ ആശുപത്രികൾ പെട്ടെന്ന് പെട്ടെന്ന് ഉയർന്ന് പൊങ്ങി വരുന്നുണ്ട് ഇപ്പം ഈ ആശുപത്രി രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ എന്താണ് ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന കുറേ ആശുപത്രികളുണ്ട് പക്ഷേ കുറച്ച് അശുപത്രികൾ എന്താണ് നമ്മളെ എന്താണ് നമ്മുടെ അസുഖങ്ങൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് നന്മ നടത്തുന്നുണ്ട് ചിലവരെന്ന് വെച്ചാൽ അവർ എന്താണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ഇല്ലാത്ത അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് ഓരോ ടെസ്റ്റുകൾ നടത്തിപ്പിക്കും അതിന് വേണ്ടി നമ്മുടേന്ന് ഒരുപാട് കാശ് വാങ്ങും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ നമ്മുടെ പാലക്കാട് നമ്മളുടെ ഇപ്പം നിലവിലുണ്ട് അവര് എഴുതുന്നതൊന്നും ഒരിക്കലും എന്താണ് ശരിയായിട്ടുള്ള രീതിയല്ല അവരുടെ നടത്തിപ്പൊന്നും നല്ല രീതിയിലല്ല കൊണ്ടു പോകുന്നത് കാരണം നമ്മളവിടെ പോകുമ്പോഴായിരിക്കും അവരുടെ എന്താ അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം കാ നമ്മളെന്തോ എന്താ അപരാദം ചെയ്ത പോലെയുള്ള പെരുമാറ്റമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക അത് ഒരിക്കലും എന്തല്ല നല്ല രീതിയല്ല കാരണം നമ്മൾ ഉള്ളതോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളൊരു രോഗികൾ ഉള്ളത് കൊണ്ടാണ് ആശുപത്രികൾ എന്തു ചെയ്യുന്നു നിലനിൽക്കുന്നുണ്ടാകാം അപ്പം നമ്മൾ നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ അസുഖം എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് നമ്മളെ എന്തു ചെയ്യണം ശുശ്രൂഷിക്കാനുള്ളതാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരത് ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരു കാര്യത്തിന് നമ്മളിപ്പോൾ പ്രസവത്തിനൊക്കെ ഇതായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മതിയായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽ അല്ലെങ്കിലും ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തരുന്ന അവിടെ ആരും ഉണ്ടാകാറില്ലാ നമുക്ക് പുറത്തു നിന്ന് ആളെ വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ അത് ചെയ്തു തരണം നമ്മൾ ഇത്രയും കാശും കൊടുത്തിട്ട് നമ്മളെ സഹായിക്കാനൊന്നുമുണ്ടാകില്ല അവരത് ചെയ് ഇത് ചെയ് എന്ന് പറയുകയെന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്താണ് ഒന്നും ചെയ്യിക്കാനും എന്തു ചെയ്യുന്നില്ല അവർ സമ്മതിക്കില്ല എന്നാൽ അവർ ചെയ്യുമോയെന്ന് ചോദിച്ചാൽ അതിനപ്പറം ഒരുപാട് മറ്റ് ഒരുപാട് ഇനി ചില ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും ആൾക്കാരുണ്ടെങ്കിലും അവർ എന്തു ചെയ്യില്ല നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നുള്ള രീതിയിലേക്ക് എന്തു ചെയ്യുക മാറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള രീതിയായിട്ട് നമുക്ക് എന്ത് തോന്നിയിട്ടില്ല